പിന്നെന്താ വിവരിക്കാമല്ലോ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഒര് പ്രൈവറ്റ് കമ്പനിയിൽ ടെക്നിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അത് ഞാൻ ഐ റ്റി ഐയിൽ ഫിറ്റർ എന്ന ട്രേഡ് പഠിക്കുകയും അതിനെ തുടർന്ന് കിട്ടിയ ജോലിയാണ് ഇപ്പം ചെയ്യുന്നത് അത് നമ്മുടെയൊരു പ്രൈവറ്റ് ഫേം ആണ് അത് ഐ എസ് ആർ ഒ എന്ന് പറയുന്ന ഗവൺമെൻറ്റ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് കോൺട്രാക്ട് വർക്കുകൾ ചെയ്തുകൊടുക്കുന്ന ഒരു പ്രൈവറ്റ് ഫേം ആണ് നമ്മുടെ മെയ്ൻ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് റോക്കറ്റിൻ്റെ ഹാർഡ്വെയറ് ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ റോക്കറ്റിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നതാണ് നമ്മുടെ ജോലി അപ്പോൾ കൂടുതലായിട്ട് ഈ അലൂമിനിയം പോലെത്തെ അലൂമിനിയം സ്റ്റൈൻലെസ്സ് സ്റ്റീല് പോലുള്ള ലോഹങ്ങളുമായി ലോഹങ്ങളാണ് നമ്മളെ ജോലിയിൽ ഉപയോഗിക്കുന്നത് ഇത് തന്നെ ചില സമയങ്ങളിൽ അത്യാവശ്യം തന്നെ കഠിനമായിട്ടുള്ള പണികൾ വരും ചില സമയങ്ങളിൽ അത് അത്ര കുഴപ്പമില്ല സുഖകരമായിരിക്കും വലിയ കുഴപ്പമില്ലാത്ത പണിയായിരിക്കും പിന്നെ ശമ്പളം നമ്മൾ അത്യാവശം കാര്യങ്ങളൊക്കെ നടന്ന് പോകും എന്നെ ഉള്ളൂ ജോലി ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ജോലിയാണ്